എൻ്റെ അഭിപ്രായത്തിൽ യോഗ ഏതു പ്രായത്തിലുള്ളവർക്കും ചെയ്യാം അറുപത് വയസ്സു കഴിഞ്ഞവർക്കും ചെയ്യാം പിള്ളോർ പിള്ളേർക്കും ചെയ്യാം എല്ലാവർ ഏതു പ്രായത്തിലുള്ളവർക്കും അതു ചെയ്യാമെന്നൊരു ഇതാണ് പക്ഷേ അധികം പ്രായമുള്ളവർക്കാണെങ്കിൽ ആദ്യമൊരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ അത് ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല യോഗ ചെയ്യുന്നത് ഏതു പ്രായക്കാർക്കും നല്ലതാണ് പിള്ളേർക്കായാലും വലിയവർക്കായാലും എല്ലാ എല്ലാവർക്കായാലും ചെയ്യാൻ നല്ല ഇതാണ് അതു ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് ഓരോ അസുഖങ്ങളും മാറിക്കിട്ടും പിന്നെ മാനസികമായ ശാരീരികമായും ഒരു ഉന്മേഷം കിട്ടും യോഗ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ഇതാണ് ഏകാഗ്രതമായി ഇത് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിന് നല്ല ഒരു ഇതാണ് നല്ലൊരു ശാന്തി സമാധാനം എന്നൊക്കെ പറയുന്ന മാതിരി നല്ലൊരു യോഗ ചെയ്യുന്നവർക്ക് അത് പ്രത്യേകിച്ച് അത് കിട്ടുന്നുണ്ട്

കുഴപ്പമില്ല ഏതു പ്രായത്തിലുള്ളവർക്കും അതു ചെയ്യാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് പ്രായമുണ്ടെങ്കിലും കുഴപ്പമില്ല പിള്ളേർക്കും ചെയ്യാം പിള്ളേര് അത് ചെറുപ്പം തൊട്ട് ചെയ്തു പഠിക്കുകയാണെങ്കിൽ അത് വലുതാകുമ്പോഴത്തേക്കും നല്ല ഒരു കാര്യമാകും അത് അവർക്ക് അത് പിള്ളേർക്ക് കാരണം ചെറുപ്പത്തിൽ തന്നെ എല്ലാം നമ്മൾ ഒരു കായികമായിട്ടും കലാപരമായിട്ടും എല്ലാം യോഗയെന്നു പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏതു പ്രായക്കാർക്കും അത് ചെയ്യാം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം നല്ലൊരു കാര്യമാണ് ശരീരത്തിനും മനസ്സിനും അസുഖങ്ങളെ നിയന്ത്രിക്കാനും എല്ലാറ്റിനും നല്ലൊരു ഇതാണ് യോഗ എന്നു പറയുന്നത് യോഗ ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ രണ്ടു സ്ഥലത്തുണ്ട് ഒത്തിരി ആൾക്കാർ അവിടെ പോകുന്നുണ്ട് എല്ലാർക്കും നല്ലൊരു ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലൊരു ഉന്മേഷോണ്ട് ചെയ്തത് എൻ്റെ അഭിപ്രായത്തിൽ യോഗ ഏത് പ്രായക്കാർക്കും ചെയ്യാം